ഒരു ചിത്രം വരയ്ക്കുകാന്ന് പറയുമ്പോൾ അതിന് ഓരോത്തവർക്കും ഓരോ ശൈലികളാണുള്ളത് എന്ന് നമുക്ക് പറയാനാവും ഇപ്പോൾ ഞാൻ വലുതായി അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇടയ്ക്കൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങ് പെൻസിൽ വരയാണ് മെ കൂടുതലും ചെയ്യാറുള്ളത് അതിൻ്റെ കൂടെത്തന്നെ വാട്ടർ കളറും ചെയ്യാറുണ്ട് പെൻസിൽ വര ചെയ്യുമ്പോൾ തന്നെ പല രീതിയിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ വേറെ രീതിയിലും ഇപ്പോൾ വേറെ രീതിയിലുമാണ് പടങ്ങൾ വരയ്ക്കുന്നത് ആദ്യംന്ന് പറയുമ്പോഴ്ത്തേക്കും പണ്ട് നേരത്തെ ആദ്യ സമയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യങ്ങ ആദ്യ കാലത്ത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ചുമ്മാ ഒരു പടം നോക്കുകയും വരക്കുകയും അങ്ങനെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ പടം ഒത്തിരി നല്ലതും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പല വീഡിയോകളിലും ഓൺലൈൻ സൈറ്റ്കളിലുമൊക്കെ കണ്ട് കണ്ട് കൂടുതൽ എന്താ വളരാൻ വേണ്ടി എനിക്ക് സാധിച്ചു ഇപ്പം ഗ്രിഡ്ഡുകളിട്ടാണ് ഞാൻ പടങ്ങൾ വരക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഉപയോഗങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് മൊഹ ശ് സാമ്യതകളൊക്കെ കൂടാൻ വേണ്ടീട്ട് അതെന്നെ സഹായിച്ചു അല്ലേ അതോടൊപ്പം തന്നെ കുറച്ചൂടെ എളുപ്പത്തിലെനിക്ക് വരക്കാനും കഴിയുന്നുണ്ട് വാട്ടർ കളറിനാണെങ്കിലും ആദ്യം നമ്മൾ സ്കെച്ചിടുമ്പോഴത്തേയ്ക്കിനും ഈ ഗ്രിഡ്ഡ് വിധമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടുത്തിടെ വരച്ച ചിത്രം എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചിത്രമാണ് വരച്ചത് അവൻ്റെ പിറന്നാളിന് ഗിഫ്റ്റായിട്ട് നൽകുവാൻ വേണ്ടിയാണ് വരച്ചത് അപ്പോൾ ആദ്യം ചെയ്തത് പേപ്പർ പെൻസിലെല്ലാം തയ്യാറാക്കി വെച്ചു പല വിധത്തിലുള്ള പെൻസില്കളുണ്ട് പല ഷെയ്ഡുകൾ ഉള്ള പെൻസിലുകളുണ്ട് ചാർക്കോൾ പെൻസിൽ പിന്നെ എച് ബി ടൂ ബി ഫോർ ബി എയിറ്റ് ബി അങ്ങനെ പല തരത്തിലുള്ള പെൻസിലുകളുണ്ട് അപ്പോൾ അതെല്ലാം തയ്യാറാക്കി എടുത്തു വെച്ചു അതിനു ശേഷം ആദ്യം ചിത്രം നോക്കുകയും അതിനനുസൃതമായ ഗ്രിഡ്ഡ്കളാദ്യം പേപ്പറേൽ വരയ്ക്കുകയും ചെയ്തു അതിന് കൃത്യമായ അളവുകളൊക്കെ ഉണ്ട് ഓരോ പടത്തിനും ഓരോ അളവുള്ള ഗ്രിഡ്ഡുകളാണുള്ളത് അത് നമ്മൾ ഒരു ഫോണിൽ ഒരു ഓഫ് ലൈനായിട്ടുള്ളൊരു ആപ്പ്ളിക്കേഷനുണ്ട് അതു വഴിയാണ് നമ്മളത് ചെയ്യുന്നത് അതിലൂടെ ഗ്രിഡ്ഡ് വരയ്ക്കുകയും പിന്നെ അതിനുശേഷം പടത്തേൽ നോക്കി ആ ഔട്ട്ലൈൻ വരയ്ക്കുകയും ഒരൂ ഷേയ്ഡ് ചെയ്യാത്തൊരു ചിത്രം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു അതിനു ശേഷം ഗ്രിഡ്ഡ് മായ്ക്കുകയും ഈ ചിത്രം ഒയാ അതിൻ്റെ യ യഥാർത്ഥ ചിത്രത്തെ നോക്കി ഷെയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു അതിലൂടെ നല്ലൊരു ചിത്രം കിട്ടുന്നു ഇങ്ങനെയാണ് ഞാൻ ചിത്രം വരക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ചിത്രങ്ങൾ വരക്കുന്നത് ഞാനീ വിധത്തിലാണ് വരയ്ക്കുന്നത്